ബാല്യകാലം ബാല്യകാലം എന്നു വച്ചാൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ നമ്മൾ ജനിച്ചു തുടങ്ങിയ ഒരു കാലം തന്നെയാണ് ബാല്യകാലം ആ ഒരു കാലമാണ് നമ്മൾ ആദ്യമായി കാണുന്നതും നമ്മൾ ആദ്യമായി ചിലവഴിക്കുന്നതുമായ ഒരു ഫസ്റ്റ് ഘട്ടം തന്നെയാണ് ഈ ബാല്യകാലം എന്ന് പറയുന്നത് ബാല്യകാലത്തിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ള കാലങ്ങളിലേക്ക് ഘഡു ഘഡുവായി കയറി കയറുന്നത് മറ്റുള്ള ഘടുവിലെത്തി നമ്മൾ വാർദ്ധക്യ കാലമെത്തിയാലും യൗവനകാലമെത്തിയാലും യുവകാലം ഏത് കാലം എത്തിയാലും ഘട്ടത്തിൽ എത്തിയാലും നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ ബാല്യകാലം കിട്ടണം എന്നു തന്നെയാണ് കാരണം ബാല്യകാലത്ത് നമ്മൾ സന്തോഷിക്കുന്നതും നമുക്ക് കിട്ടുന്ന ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് ഡിപ്രഷൻ ഇല്ല സങ്കടം വേണ്ട മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കേണ്ട ചിലവില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ പാരന്റ്സിനോടും മാതാപിതാക്കളോടും സന്തോഷിച്ചും ചിരിച്ചും അവരുടെ വഴക്ക് കേട്ട് ഇടയ്ക്ക് കരഞ്ഞും അവർ തരുന്ന ഫുഡ് വാരിത്തന്നും അങ്ങനെ കൊഞ്ചിച്ച് വളർത്തുന്ന ഒരു കാലമാണ് കാലമാണ് ബാല്യകാലം അന്നേരമുള്ള കൂട്ടുകാരാണെങ്കിലും അന്നേരം നടത്തുന്ന കുരുട്ട കുരുത്തക്കേടുകളും അതൊക്കെ വളരെ സന്തോഷകരമായ ഒന്ന് തന്നെയാണ് ബാല്യകാലം മിസ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് ലോകത്ത് ബാല്യകാലം ബാല്യകാലം കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട് ഇന്ന് ലോകത്ത് പക്ഷേ കിട്ടാതെ പോയതിനെക്കാട്ടും ഏറ്റവും റിമംബർ റിമംബർ ഓർമ്മിക്കപ്പെടുന്ന ഒന്നു തന്നെയാണ് ബാല്യകാലം എന്നത് ബാല്യകാലം ഒരു ഒരു വ്യക്തിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ് അത്രയും അത്രയും ഓർമ്മകളാണ് നമുക്ക് ബാല്യകാലത്തിൽ ലഭിക്കുന്നത് എന്തുകൊണ്ടും എന്തുകൊണ്ടും സന്തോഷിക്കാൻ പറ്റിയ ഒരു കാലം തന്നെയാണ് ബാല്യകാലം എന്നത് മനുഷ്യർ മനുഷ്യർ എല്ലാ മനുഷ്യരും ബാല്യകാലത്തിൽ കൂടിയാണ് കടന്നു കടന്നു കടന്നു കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ഏറ്റവും സന്തോഷിക്കപ്പെടുന്ന കാലവും ബാല്യകാലം തന്നെയാണ് ഈ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം ബാല്യകാലം ആയതുകൊണ്ട് തന്നെ ആ ഒരുകാലത്ത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ നല്ല പ്രവൃത്തികൾ ചെയ്യാനും നമുക്ക് ടൈം കിട്ടുന്നത് നമുക്ക് വീടുകളിൽ ഉറങ്ങുകയും കുടിക്കുകയും മാത്രം ചെയ്താൽ മതി കളിക്കുകയും ബാക്കിയെല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്തു തരും പക്ഷേ മറ്റ് തലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ വരികയും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും അതോർത്ത് വിഷമിക്കേണ്ടി വരുന്നുണ്ട് ഡിപ്രഷൻ ഡിപ്രഷനാണ് മറ്റുള്ള കാലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മാറിമാറി വരുന്നത് പക്ഷേ യുവ ബാല്യകാലം എത്തുമ്പോൾ നമുക്ക് ഡിപ്രഷൻ എന്ന ഒരു കാര്യം ഇല്ല അതുകൊണ്ടുതന്നെയാണ് ബാല്യകാലം ഏറ്റവും രസകരമായ കാലം എന്നു പറയുന്നത് ഭാവി ചിന്തിക്കെണ്ട ഭൂതകാലം നമുക്ക് ഓർമ്മയുണ്ടാകില്ല അതുകൊണ്ടുതന്നെ ഈ ബാല്യകാലം നമുക്ക് ഏറ്റവും സവിശേഷതമായതും സന്തോഷമായതും മറക്കാൻ പറ്റാത്തതുമായ ഒരു കാലവും തന്നെയാണ് കാലം തന്നെയാണ്